കോഴിക്കോട് ജില്ലയിലെ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനാവസരങ്ങളും വളരെ നല്ല രീതിയിൽ നല്ല ഗുണനിലവാരവും ഉള്ളതായിരുന്നു ഈ അവസരങ്ങളിൽ ജില്ലകളിൽ മൊത്തത്തിൽ വികസനത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു വിദ്യാഭ്യാസം പഠനം അവസരങ്ങൾ വികസനം വളർച്ച സമീപത്തുള്ള ചില പ്രശസ്തമായ കോച്ചിങ്ങ് ക്ലാസ്സുകളും എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ കോയിക്കോടെന്ന ജില്ലയിലെ വിദ്യാഭ്യാസം രീതി നല്ല രീതിയിൽ ഉയർത്തും പിന്നെ കൂടുതൽ ഇൻസ്റ്റിറ്റൂഷനുകളും പുതിയ കോഴ്സുകളും പുതു തലമുറക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കോഴിക്കോട് ജില്ലയിൽ വളരെ നല്ല രീതിയിൽ മുൻഗണന കൊടുക്കുന്നുണ്ട് നല്ലൊരു സിറ്റിയായി മാറുകയായിരുന്നു കോഴിക്കോട് സർക്കാരുകളുമെല്ലാം ഒത്തുചേർന്നാണ് ഇങ്ങനെയുള്ള വിജയത്തിന് പിന്നിൽ